പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ കൃഷിക്കാരെ ഇങ്ങനെ തേടി അന്വേഷിച്ച് പോകുന്ന കാര്യങ്ങളില്ലായിരുന്നു എവിടെ ചോദിച്ചാലും കൃഷിക്കാരൊക്കെയായിരുന്നു പക്ഷെ ഇപ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെ കിട്ടാനില്ല ഒന്നോ രണ്ടോ പേരൊക്കെയാണ് ഇപ്പം കൃഷി നടത്താറ് ഇപ്പം എല്ലാവരും മെല്ലെ കൃഷിയൊക്കെ വിട്ട് ബാക്കിയുള്ള ജോലിയിലേക്ക് അതായത് വേറെ വേറെ ഓരോരോ ജോലിയിലേക്ക് മാറി ചെലവർ ഹോട്ടല് അങ്ങനെ കാര്യങ്ങൾ ചെലവർ വാർക്കപ്പണി ചിലർ കമ്പനികളിൽ അപ്പം എല്ലാവരും അങ്ങനെങ്ങനെ പോകുമ്പോൾ കൃഷിയിലേക്ക് ആൾക്കാരില്ലാതാവും പിന്നെ നിലനിർത്താൻ വേണ്ടി തന്നെ കുറേ കുറച്ച്പേരൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും അല്ലാത്തവർ പുറത്തുള്ള ജോലിയൊക്കെ തേടിപ്പോവും അവിടെ പോയി ജോലി തേടി പോയാലും അവിടെ ദിവസക്കൂലി എന്നൊക്കെ പറയുന്നത് ഒരു പത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ഏറ്റവും കൂടിപ്പോയാൽ ഒരു പത്തഞ്ഞൂറ് രൂപയൊക്കെ കിട്ടും